നൃത്തം ചെയ്യാനും നൃത്തം പഠിപ്പിക്കാനും ഒരുപാട് ഇഷ്ഠമുള്ള ഒരാളാണ് ഞാൻ ഇതിന് മുന്നേ സ്കൂളിലെന്ന രീതിയിലൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒരുപാട് പരിപാടികൾക്കായിട്ട് പലപ്പോഴായി മറ്റുള്ളവരെ നൃത്തം പഠിപ്പിക്കാൻ എനിക്കവസരം ലഭിച്ചിട്ടുണ്ട് സ്കൂളിലെ പരിപാടികൾക്കും അതുപോലേ സ്കൂളിലെ കലാപരിപാടികൾക്കും മത്സരങ്ങൾക്കും അതുപോലെ കോളേജിലും ജോലി സ്ഥലത്തും ആയാലും പല പല പരിപാടികൾ ഓണാഘോഷങ്ങളായിക്കോട്ടേ കോമ്പറ്റീഷനായിക്കോട്ടേ മത്സര ഇനങ്ങളായിക്കോട്ടേ എവിടേ അവസരം കിട്ടിയാലും നൃത്തം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെത്തന്നെ എൻ്റെ കൂടെയുള്ളവരെ നൃത്തം പഠിപ്പിക്കാനും അത്തുകൊണ്ടുതന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കിട്ടിയ അവസരങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നൃത്തം പഠിപ്പിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം ഉള്ളൊരു കാര്യം കൂടിയാണ് ഇതിലുണ്ടായ അനുഭവമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉം കോളേജിലും മറ്റു പരിപാടികൾക്കായിട്ട് നൃത്തം പഠിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ നൃത്തം അറിയാവുന്നവരാണെങ്കിൽ പഠിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ നൃത്തം അറിയാത്തവരോ പഠിക്കാത്തവരോ അല്ലങ്കിൽ ആദ്യമായി കളിക്കുന്നവരോ ഒക്കെയാണെങ്കിൽ അവരെ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളത് കുറേശ്ശെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാൽക്കൂടിയും അവർ നല്ല താല്പര്യം താൽപര്യത്തോടെ നമ്മോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്കും അവരെ പഠിപ്പിക്കാൻ വളരെയധികം ആവേശപൂർവ്വം നമുക്കും അവരെ പഠിപ്പിക്കാൻ സാധിക്കും അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളൊരുപാടുണ്ടായിട്ടുണ്ട് ആദ്യമായി കളിക്കുന്നവരാണെങ്കിൽക്കൂടിയും നല്ലരീതിയിൽ പരിപാടിയ്ക്ക് നൃത്തം ചെയ്യുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട് പഠിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ കൂടി എല്ലാം കഴിഞ്ഞ് അവസാനം പരിപാടിക്ക് ശേഷം അവർക്കും ഒരു സന്തോഷമാണ് അതുപോലെത്തന്നെ നമ്മളിങ്ങനെ ചെയ്തല്ലോ എന്നാലോചിക്കുമ്പോൾ നമ്മൾക്കും വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണത് എത്രത്തോളം ശ്രമിച്ചാലും ചിലപ്പോൾ അവർ ഏറ്റവും നന്നായി തന്നേ ചെയ്യാൻ പറ്റി എന്ന് വരില്ല എന്നിരുന്നാൽ കൂടിയും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമല്ല കാണുന്നവർക്കും അതുപോലെത്തന്നെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ച നമുക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം ആയതുകൊണ്ടുതന്നെ എന്തുകൊണ്ടും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് നൃത്തം പഠിപ്പിക്കലിനെ ഞാൻ കാണുന്നത് നൃത്തം ചെയ്യുക എന്നുള്ളതും നൃത്തം പഠിപ്പിക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽക്കൂടിയും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതത്രയും വലുതായത് കൊണ്ടുതന്നെ നമ്മളൊരിക്കലും അതിനുള്ള ഒരവസരം കളയരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെത്തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് എപ്പോഴൊക്കെ നൃത്തം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുകയെന്നുള്ളത് ഒരു നല്ല കാര്യമായാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരൊക്കെ നൃത്തം പഠിപ്പിക്കാൻ പറ്റുമോ അവരെ എല്ലാരും ഞാൻ എൻ്റെ മുഴുവൻ പ്രയത്നവും നൽകി ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് അത് മിക്കപ്പോഴും നല്ല രീതിയിൽ തന്നെ നല്ല റിസൾട്ട് ലഭിക്കാറും ഉണ്ട്